മലയാളഭാഷയുടെ തുടക്കം തന്നെ സംസ്കൃതത്തിൻ്റെ സ്വാധീനത്തോട് കൂടി ആയിരുന്നല്ലോ മലയാളഭാഷ സംസ്കൃതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഷ തന്നെയാണ് പലപ്പോഴും സംസ്കൃതം ഇംഗ്ലീഷ് തുടങ്ങിയ മറ്റ് ഭാഷകൾ മലയാളത്തെ സാരമായി സ്വാധീനിക്കുന്നുണ്ട് കാരണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാമുപയോഗിക്കുന്ന വാക്കുകൾ പലതും ഇവയുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതോ അല്ലങ്കിൽ അവയിൽ നിന്ന് രൂപപെട്ടതോ ആകാം ഒട്ടു മിക്കമലയാളവാക്കുകളും സംസ്കൃതഭാഷയിൽ നിന്നും ഉടലെടുത്ത് അല്ലങ്കിൽ സംസ്കൃതഭാഷയിൽ നിന്ന് തുടങ്ങിയ വാക്കുകളാണ് നാം ഉപയോഗിക്കുന്നത് നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല വാക്കുകളും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷ് വാക്കുകൾ നമ്മുടെ മലയാളത്തിൻ്റെ ഭാഗമായിട്ട് കടന്ന് വരുന്നുണ്ട് ഉദാഹരണമായിട്ട് എലക്ട്രിസിറ്റി മൊബൈൽ ഫോൺ അങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മുടെ മലയാളത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാഷയാണ് അതുകൊണ്ട് തന്നെ മലയാളം ഒരുതരത്തിൽ ഇവയുടെ സ്വാധീനമില്ലാത്ത പൂർണ്ണമല്ല എന്ന് തന്നെ പറയേണ്ടി വരും സംസ്കൃതം ഇംഗ്ലീഷ് തുടങ്ങിയ മറ്റ് ഭാഷകൾ മലയാളഭാഷയെ അത്രയ്ക്ക് സ്വാധീനിച്ചിട്ടുണ്ട് നാം ഉപയോഗിക്കുന്നതും എഴുതുന്നതും നാം വായിക്കുന്നതുമായ മലയാള ഭാഷയെക്കുറിച്ചുള്ള മിക്ക പഠനങ്ങളിലും ആദ്യമ രൂപം സംസ്കൃതത്തിൻ്റെ സംസ്കൃതവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ പല വാക്കുകളും ഇതുമായിട്ട് തന്നെ കാര്യമായ രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന മലയാള സാഹിത്യത്തിലാണെങ്കിലും ആദ്യകാല കൃതികളൊക്കെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത് സംസ്കൃത ഭാഷമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ആദ്യ കാല മലയാള കൃതികള് ചെറുശ്ശേരിയുടെ ആണെങ്കിലും ഉള്ളൂരിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ പൗരാണിക കവിത്രയങ്ങള് എഴുത്തച്ഛൻ കുഞ്ചൻനമ്പ്യാറ് ചെറുശ്ശേരി തുടങ്ങിയവരാണെങ്കിലൊക്കെ തന്നെ ഈ ഒരു ഭാഷയെ ചേർത്ത് വച്ച കവികൾ തന്നെയാണ് മലയാള സാഹിത്യമാണെങ്കിലും നാം ഉപയോഗിക്കുന്ന ഇന്നത്തെ മലയാളഭാഷയില് സംസ്കൃതവും ഇംഗ്ലീഷും കാര്യമായ രീതിയിൽ തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഭാഷയാണ് അതോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഷ തന്നെയാണ്